ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനം എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളിൽ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പഴത്തേക്കും വളരെയധികം വികസിതമായി എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല എന്നാൽ ഇന്ത്യയിലെ എന്താ ചില ചില രോഗങ്ങൾക്ക് വേണ്ടുന്ന പ്രതിവിധികൾ കണ്ടെത്തുവാനും അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആരോഗ്യവും സമാധാനവും പുലർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ശ്രമിക്കുന്നുണ്ട് അതിൽ പദ്ധതികളും അവർ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ചില എന്താണ് സാങ്കേതിക വിദ്യകളുടെ അഭാവവും അതുപോലെ തന്നെ വേണ്ടത്ര അറിവില്ലായ്മകളും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടത്ര അവബോധമില്ലായ്മയൊക്കെ തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനങ്ങൾ കൂടുതലും കാര്യക്ഷമം ആകുന്നതിൽ വലിയ വലിയ തോതിൽ തടസ്സങ്ങൾ നേടുന്ന നേരിടുന്നുണ്ട് എന്നാൽ മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഇന്ത്യയിലെ ആരോഗ്യ നില മെച്ചപ്പെട്ടത് തന്നെയാണ് എന്നിരുന്നാലും മറ്റു രാജ്യങ്ങളടേതുപോലെ അത്രയും ഡെവലപ്പ്ഡ് ആയിട്ടുള്ള രാജ്യമല്ല ഇന്ത്യ എന്നത് എന്നത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ആരോഗ്യ സംവിധാനമാണ് ഇന്ത്യയിലിപ്പോൾ നിലവിലുള്ളത് ഏറ്റവും ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളതിൽ വച്ച് ഏറ്റവും മികച്ച രീതിയിലാണ് ഗവൺമെൻറ്റ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ ആരോഗ്യ സംവിധാനം ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്രദമാകുന്നുണ്ട് അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സർക്കാർ ആശുപത്രികളും മറ്റും അതുപോലെ തന്നെ ഹെൽത്ത് സെൻ്ററുകളൊക്കെ തന്നെ ഗവൺമെൻറ്റ് ആരോഗ്യ സംവിധാനത്തിൽ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള പോഷക കിറ്റുകളൊക്കെ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റ് നൽകുന്നുണ്ട് ഇതെല്ലാം തന്നെ ഇന്ത്യയെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൻ്റെ ഒരു ഒരു മികച്ച സവിശേഷതയാണ് എന്നിരുന്നാലും വേണ്ടത്ര ടെക്നോളജീസിൻ്റെ അഭാവം എന്ന് പറയുന്നത് ഈ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഒരു പോരായ്മകൾ മാത്രമാണ് അതുപോലെ തന്നെ ഒരു ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ചെലവുകളും അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗം കണ്ടെത്തുന്നതിലും സർക്കാരിന് വേണ്ടത്ര ഒരു സാധ്യത ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ അമേരിക്ക പോലെയുള്ള മറ്റു രാജ്യങ്ങളുമായിട്ട് കംമ്പെയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത് ഒരുപടി താഴെയാണ്